ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവ സമയമാവുമ്പോഴത്തേക്ക് ഒരാചാരമുണ്ട് സംഭവം ശരീരത്തിൽ മറ്റേ ഈ ദേവിയാണെ കയറുമ്പോഴത്തേക്ക് ഇവരാണെങ്കിൽ മറ്റേ കൊതുമ്പ് ഉണ്ടല്ലോ കൊതുമ്പ് വെച്ച് ചൂട് പായസ്സമെടുത്ത് പുറത്തിങ്ങനെ അടിക്കണ ഒരു പരിപാടി അവിടെയുണ്ട് സംഭവം അതെങ്ങനെയെന്ന് വച്ചാൽ ഉത്സവമാകുമ്പോഴത്തേക്ക് ഉത്സവത്തിൽ കുറേ ആൾക്കാർ വന്ന് ഇങ്ങനെ വരും ഇങ്ങനെ ക്ഷേത്രത്തിൽ വരികയൊക്കെ ചെയ്യും അങ്ങനെ ക്ഷേത്രത്തിൽ വരുമ്പം ചിലർക്ക് എന്ത് പറ്റും അവരാണെങ്കിൽ വ്രതമെടുക്കും വ്രതമെടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ക്ഷേത്രത്തിലുത്സവം പത്ത് ദിവസമെങ്ങാണ്ടുണ്ട് അപ്പം പത്ത് ദിവസം ഉത്സവം ഉള്ള ക്ഷേത്രമാക്കിക്കൊണ്ട് തന്നെ ഇവരാണങ്കിൽ വ്രതമൊക്കെയെടുത്ത് ലാസ്റ്റ് ദിവസത്തിൽ പൊങ്കാലയിടും ദേവിയാണ് അപ്പം പൊങ്കാലയിട്ട് പൊങ്കാലയിടുമ്പോൾ പൊങ്കാലയിട്ട് പൊങ്കാലയൊക്കെ ഇതായി ഇനി വരുമ്പം ക്ഷേത്രത്തിൽ ഇത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് ഈ പൊങ്കാലയാണെങ്കിൽ ഇവർ ഈ പോറ്റി അന്നേരം എന്തോ ചെയ്യും അങ്ങനെ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഈ വ്രതം പിടിച്ച ആൾക്കാർ ചെന്ന് ദേവീൻ്റെ മുൻപിൽ കൊണ്ടുനിർത്തും അങ്ങനെ ദേവീൻ്റെ മുൻപിൽ കൊണ്ടുനിർത്തും അപ്പം ദേവി ഇതിൽ എല്ലാവരേയും അല്ലെ കടാക്ഷിക്കും എല്ലാവരേയും കടാക്ഷിച്ചിട്ട് ഏതെങ്കിലും ഒരാളുടെ പുറത്ത് ഇങ്ങനെ കയറും ദേവി കയറും അങ്ങനെ ഇതാണെങ്കിൽ ഈ സംഭവം തുള്ളും ഇങ്ങനെ തുള്ളി കുറേ നേരം തുള്ളിയിട്ടിങ്ങനെ കൊതുമ്പ് വെച്ച് കൊതുമ്പ് കൊതുമ്പെന്ന് വച്ചാൽ മറ്റേ തെങ്ങിലെ പൂക്കുല അങ്ങനെയുള്ള സംഭവമാണ് ആ സാധനം എടുത്ത് എടുത്തിട്ട് ഈ പായസ്സത്തിൽ മുക്കിങ്ങനെ പുറത്ത് വെക്കും ഇങ്ങനെ ഒഴിച്ചിട്ടിങ്ങനെ അടിച്ച് തെറിപ്പിക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ എല്ലാം ചെയ്ത് അപ്പോഴത്തേക്ക് നമ്മൾ നല്ല പോലെ പ്രാർത്ഥിക്കും നമ്മൾ നല്ലപോലെ പ്രാർത്ഥിച്ച് നമ്മൾ നമ്മൾ പറയണതൊക്ക ചിലപ്പം നമ്മൾ ചെയ്യും അങ്ങനെ പുറത്ത് മൊത്തം അടിച്ച് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ആ ശരീരത്തിൽനിന്ന് മാറി അടുത്ത ശരീരത്തേക്ക് കയറി പിന്നെയവർ ഇതേപോലെ പുറത്തിങ്ങനെ പായസ്സമൊക്കെ കോരി അടിച്ച് ഇതിലെ സംഭവം എന്തെന്നുവെച്ചാൽ ദേവി കടാക്ഷിച്ചിട്ട് ദേവി പായസം കുടിക്കണ അങ്ങനെ എന്തോ സംഭവമാണ് എന്നിട്ട് സംഭവം വേറെ എന്തെന്ന് വച്ചാൽ ഈ പായസ്സം പുറത്തിത്ര ചൂടുള്ള പായസം പുറത്ത് വീണാലും അവരുടെ ശരീരം പൊള്ളത്തില്ല കാരണം ദേവീടെ കടാക്ഷമെന്നൊക്കെയാണ് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം പറയണതെങ്കിലും എനിക്കതിനെക്കുറിച്ച് വല്യ ഐഡിയ ഇല്ല അപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും എന്നിട്ട് ഇതേപോലെ പുറത്തടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ടവസാനം ദേവീൻ്റെ നടയിൽപ്പോയി ഇവർ പ്രാർത്ഥിച്ചിട്ട് ബോധം കെട്ട് വീഴും അപ്പം നാട്ടുകാരെല്ലാം എടുത്തുകൊണ്ട് വളരെ അധികം വെള്ളമൊഴിച്ച് പുറത്ത് വെള്ളമൊഴിച്ച് മുഖത്തും അപ്പം അവർക്ക് ദേവീ കടാക്ഷമൊക്കെ പോയിട്ട് എന്നുവെച്ചാൽ ഇങ്ങനെ കുറേ പായസം അങ്ങനെ എല്ലാം കൊടുത്തിട്ട് അവരെ വീട്ടിൽ പറഞ്ഞയയ്ക്കും അതാണ് സംഭവം